ആ ഹലോ ആ അതെ അതെ ആ പറഞ്ഞോളൂ ആ ഹാ ആ ആ ഇത് ആൺപിള്ളേരല്ലേ ആ ആ ആ ആയിക്കോട്ടെ ആ ഞങ്ങളുടെ പീ ജി വരുന്നത് മറ്റേ എസ് ബി ഐൻ്റെ ഏ റ്റി എമ്മില്ലേ അതിന്റെ ഇടത് ഭാഗത്തായിട്ട് വരുന്ന വീടാണ് ആ നിങ്ങൾ നോക്കീട്ട് വന്നാൽ മതി ഒരു രണ്ട് നില കെട്ടിടമാണ് ഇവിടെ താഴത്തെ നിലയിൽ മൂന്ന് റൂമും അതുപോലെ തന്നെ മേലത്തെ നിലയിൽ മൂന്ന് റൂമാള്ളേ ഒരു റൂമിൽ നാല് പേര് എന്ന രീതിക്കാണ് ആണോ എന്നാൽ നോക്ക് അങ്ങനെയാണെങ്കിൽ മേളത്തെ ഞാൻ എടുക്കേണ്ടി വരും മേലത്തെ ഫ്ലോറ് നിങ്ങൾക്ക് തരാം അങ്ങനെയാണെങ്കിൽ മേലത്തെ റൂമ് രണ്ട് ബെഡ്ഡൊള്ളത് ആ അപ്പോൾ ആ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറരയ്ക്ക് മുമ്പ് കയറണം പിന്നതുപോലെ തന്നെ വീടൊക്കെ വൃത്തീലും ആ ആറരയ്ക്ക് മുമ്പ് ആ വീടൊക്കെ വൃത്തീൽ നോക്കി നടത്തണം ആ പിന്നെ അഡ്വാൻസ്സ് വരുന്നത് പതിനായിരം രൂപയാണ് അത് ഞാൻ തിരിച്ച് തരും നിങ്ങൾ രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് പോകുമ്പോഴാണ് തിരിച്ച് തരുക ആ അഡ്വാൻസ്സ് തിരിച്ചു തരും പതിനായിരം രൂപ ആ പിന്നെ നിങ്ങൾ ആ മാസം നിങ്ങൾ തരേണ്ടത് അയ്യായിരത്തി അ അറുന്നൂറ് ആ ഇതിന്റെ ആ ഇതിൽ ഫുഡ്ഡും ആ പറഞ്ഞു തരാം പറഞ്ഞു തരാം ഇതിൽ ഫുഡ് ഇൻക്ലൂഡഡാണ് അതുപോലെ തന്നെ ആ പിന്നെ കറണ്ട് ചാർജ്ജും ഇൻക്ലൂഡഡാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്തിരിപ്പെട്ടി യൂസ് ചെയ്യാം അതുപോലെ തന്നെ ചാർജറ് അങ്ങനത്തെ അല്ലറ ചില്ലറ അല്ലറ ചില്ലറ കാര്യങ്ങൾ പിന്നെ റൂമ് നോക്കാണെങ്കിൽ രണ്ട് ഫാന്ണ്ട് പിന്നെ അതുപോലെ തന്നെ ആ രണ്ട് ഫാന്ണ്ട് ആ രണ്ട് ഫാന് രണ്ട് ബെഡ് നിങ്ങൾ രണ്ട് പേര് കിടക്കാൻ രണ്ട് ബെഡ്ഡ് വേണ്ടേ ആ രണ്ട് ഫാന് രണ്ട് ബെഡ്ഡ് ഓ ഓ ആയിക്കോട്ടായിക്കോട്ടെ എന്നാൽ ഇവിടെ രണ്ട് ഫാനും രണ്ട് ടേബിളൊക്കെ ഉണ്ട് ഇൻഡിവിജ്വലായിട്ട് രണ്ട് ടേബിള് രണ്ട് പേർക്കും നിങ്ങൾ ഇല്ലില്ലില്ല കുഴപ്പമില്ല കുഴപ്പമില്ല അതെല്ലാം ഈ അയ്യായിരത്തി അറുന്നൂറിൽ ഇൻവോൾഡാണ് ആ ഒത്തിരി നേരം തേക്കാം കുഴപ്പമില്ല ആ ആ ഹീ ഹീറ്ററ് കാര്യങ്ങളൊക്കെ അവിടെ ചൂടുവെള്ളം വരുന്നൊരു പൈപ്പ്ണ്ട് ആ ചൂടുവെള്ളം വരുന്ന പൈപ്പ്ണ്ട് ഹലോ അല്ല വെള്ളം വരാത്തപ്പെന്നെ വിളിച്ചാൽ മതി ഞാൻ മോട്ടറിന്റെ സ്വിച്ചോണാക്കിക്കോള്ളാം അല്ല നിങ്ങൾ രണ്ട് പേരുണ്ട് എന്നല്ലെ പറഞ്ഞത് അപ്പം അവനെന്നെ വിളിച്ചോളും കുഴപ്പമില്ലല്ലോ അല്ലെങ്കിൽ ആ ഓ അങ്ങനില്ല ആ എന്താ പറയാ പിൻഭാഗത്തായിട്ട് ഒരു സ്വിച്ചുണ്ട് മോനെന്തായാലും ഇങ്ങോട്ട് വരുവല്ലോ റൂമ് കാണാൻ അപ്പോൾ ചേച്ചി കാണിച്ച് തരാം ആ അപ്പം എല്ലാം പഠിപ്പിച്ച് തരാം ആ അപ്പം ഞാൻ ചേച്ചി എല്ലാം പറഞ്ഞു തരാം എന്താ ഏ ഓ അഴയിണ്ട് അഴയിണ്ട് അഴയിണ്ട്

അല്ല രണ്ട് ആൺപിള്ളേരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആൺപിള്ളേരുടെ ഹോസ്റ്റലാ അത് ആൺപിള്ളേരെയാണ് വേണ്ടത് അതാണ് ഞാനുദ്ദേശിച്ചത് അ രണ്ട് ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ് ഇത് മനസ്സിലായോ പീ ജി ഞാനും എന്റെ ഭർത്താവും കകൂടെ നടത്തുന്നതായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആൺപിള്ളേർക്കാണ് കൊടുക്കുന്നത് ആ ആ പിന്നെ ബാക്കിയുള്ള ആൺപിള്ളേരക്കെ വരും പിന്നെ നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ കൊണ്ടരൂല്ലോ അത്ര അധികം നല്ല സർവീസസാണ് ഞങ്ങളിവടെ കൊടുക്കുന്നത് കാലങ്ങളായിട്ടുള്ള പാരമ്പര്യമാണ് ആ എന്റെ ഭർത്താവ് ദുബായിലാണ് ഇപ്പോൾ നാട്ടിലുണ്ട് ഇപ്പം നിർത്തിപ്പോന്ന് ഞാൻ ടീച്ചറാ ആ ടീച്ചറാ ടീച്ചറാ ഏ എന്താ പീ ജിലോ ആ ഇപ്പം അവിടെ രണ്ട് ചെക്കന്മാരുണ്ട് അതെ രണ്ട് പേരും ബീ ക്കോമാ പഠിക്കുന്നത് ആ ആ ആ ആ അപ്പെന്നാൽ എന്നെ വിളിച്ച് വിളിച്ചിട്ട് വരണേ ആ ആയിക്കോട്ടായിക്കോട്ടെ ശരി ശരി